ഓക്കെ എനിക്കറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം പിന്നെന്താ തമിഴ് പറയാനറിയാം പറയുന്നത് മനസ്സിലാക്കാൻ അറിയാം വായിക്കാനും എഴുതാനും അറിയത്തില്ല പിന്നെ ഇതുവായിട്ട് മലയാളത്തിനെ കംപയർ ചെയ്യുമ്പഴത്തേനും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് മലയാളം തന്നെയാണ് ഒഫ്കോഴ്സ് ബികോസ് എന്താണ് അതായത് നമ്മുടെ എൻ്റെ മദർ ടങ്ങാണ് മാതൃഭാഷയാണല്ലോ മലയാളം അപ്പോൾ കൂടുതൽ കംഫർട്ടബൾ ആയിട്ടുള്ളത് മലയാളമാണ് പക്ഷേ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ അതായത് ഇന്ത്യന്ന് വെളിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്കേറ്റവും ആവശ്യമായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് അപ്പം ഇംഗ്ലീഷിനും വളരെ വലിയപ്രാധാന്യം ഉണ്ട് പിന്നെ ഹിന്ദീ എന്ന് പറയുമ്പോഴത്തേന് ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാണ് ഹിന്ദി അപ്പോൾ ഇപ്പോൾ അതായത് ഇന്ത്യക്കുള്ളിൽതന്നെ കേരളത്തിന് പുറത്ത് എവിടേക്ക് പോവാണേൽതന്നെ ഹിന്ദി അറിയുവാണെങ്കിൽ വലിയ ഉപകാരം ആണ് പിന്നെന്താ ഇതിൽ വെച്ച് കംപയർ ചെയ്യുമ്പത്തേനും ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് അതായത് കേരളത്തിന് പുറത്തുള്ളവർ പറയുന്നത് മലയാളമാണ് ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ അവിടെത്തന്നെ ജനിച്ച് വളർന്ന് ഇവിടത്തെ ഭാഷ പഠിച്ചതുകൊണ്ടായിരിക്കണം നമുക്കത് അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് എളുപ്പമാണ് അതായത് നമുക്ക് മലയാളം എന്ന് പറയുമ്പോൾ നിസാരമാണ് പക്ഷേ അവർക്ക് അങ്ങനെയല്ല ഓക്കെ അത്രയുള്ളൂ